കഴിഞ്ഞ ദിവസം ആ ഒരു രാത്രി ആയപ്പോഴത്തേക്കും പുറത്ത് പുറത്തുപോയി തിരിച്ചുവരുമ്പോഴത്തേക്ക് തിരിച്ചുവന്ന് വീട്ടിലെത്തി ഭയങ്കര തലവേദന അങ്ങനെ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് ഓർഡർ ചെയ്ത് ഒരു പത്തുമണിയൊക്കെ ആകാറായി അവർ പത്തര ആകുമ്പോഴത്തേക്ക് ഫുഡ് എത്തിക്കാം എന്ന് പറഞ്ഞ് പക്ഷെ ഓർഡർ എല്ലാം പ്ലേസ്മെൻ്റ് ചെയ്ത് പത്തര ആയിട്ടും ഫുഡ് എത്തിയില്ല അങ്ങനെ നോക്ക് നോക്കിയപ്പോഴത്തേക്ക് പത്തേമുക്കാൽ ആകാറായി പറഞ്ഞ റേറ്റിനേക്കാളും പ്രൈ പ്രൈസ് കൂടുതൽ അവർ എക്സ്ട്രാ ചോദിച്ചു എക്സ്ട്രാ ചോദിച്ച സമയത്ത് പ പത്തരയ്ക്ക് സാധനം എത്തുകയും ചെയ്തില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ ആപ്പിൽ കയറി എന്തായാലും നമുക്ക് ഈ ഓർഡർ വേണ്ട കാരണം നമ്മൾ ഒരു നാനൂറ്റി എഴുപത്തഞ്ച് രൂപ കൊടുത്താണ് ആ ഓഡർ ചെയ്തത് അവരുടെ നമ്മളാ ഇത് സ്ഥലത്ത് വന്നത് രാത്രി ആയതുകൊണ്ട് അവർ എക്സ്ട്രാ ഒരു വൺ ഫിഫ്റ്റി കൂടെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് സമയത്തിന് എത്തുകയും ഇല്ല പിന്നെ നല്ലൊരു ഹോട്ടൽ അല്ല നമ്മൾ രാത്രി ആയത് നല്ലൊരു ഹോട്ടൽ അല്ല കിട്ടിയത് അതുകൊണ്ട് ആ സ്വിഗ്ഗിയുടെ ഓർഡർ ക്യാൻസൽ ചെയ്തു സൈറ്റിൽ കയറി ക്യാൻസൽ ചെയ്യേണ്ടിവന്നു